കേരളത്തിലെ വിനോദ വ്യവസായങ്ങളില് അത് ജോലി ചെയ്യുന്നവരുടെ പ്രശ്നം എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കില് അവർക്ക് ഭയങ്കര പ്രഷർ ആണ് പിന്നെ ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്കൊരു സാലറി അവിടുത്തെ ആണുങ്ങൾക്ക് വേറെ സാലറി അങ്ങനെയൊക്കെയാണ് പിന്നെ സ്ത്രീകളെ ഭയങ്കരമായിട്ട് മിസ്സ്യൂസ് ചെയ്യുന്ന പോലെയൊക്കെയുണ്ട് തോന്നാറുണ്ട് പിന്നെ സ്ത്രീകളോടൊക്കെ ഒരു പ്രത്യേക രീതിയിൽ പെരുമാറ്റത്തില് വ്യത്യാസം ആണുങ്ങളോട് കൊണ്ട് വേറെ രീതി സംസാരം അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്